എനിക്ക് പുസ്തകമൊന്നും ഒരുപാട് വായിക്കാന് പറ്റത്തില്ല ഞാന് വായിക്കുന്നത് ഒരു മണിക്കൂര് വല്ലതും വായിക്കും അതും വായിക്കുന്നത് ഞാന് ബൈബിളാണ് വായിക്കുന്നത് അത് ഒരു മണിക്കൂർ വല്ലതും ഞാൻ വായിക്കും ഒരുപാട് സമയമൊന്നും എനിക്ക് വായിക്കാൻ പറ്റത്തില്ല ഞാനൊരു വീട്ടമ്മയാണ് അതുകൊണ്ട് കുറച്ച് സമയമേ എനിക്കെടുത്ത് ഈ വാ വായിക്കാൻ പറ്റുകയുള്ളൂ അത് കൂടുതലും ഞാൻ ബൈബിളേ വായിക്കത്തുള്ളൂ അതുപോലെ പ്രതിമാസ പ്രതിവാര ലക്ഷ്യങ്ങൾ വെച്ചിട്ട് അത് അത് ഒരു ഒന്നും വായിച്ച് വായിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല പറ്റുകയില്ല അതുകൊണ്ടാണ് ഞാന് കുറച്ച് കുറച്ച് സമയമെടുത്ത് ബുക്കുകൾ വായിക്കുന്നത് വീട്ടിലെ വചനങ്ങളും വ പിന്നെ ബൈബിളുമാണ് വായിച്ച് സമയം